ഹലോ അതെ അത് നമുക്കതിനെക്കുറിച്ചു വലുതായിട്ടൊന്നും അറിയില്ല അതായത് ഞങ്ങള് ഗ്യാസ് കൊണ്ടുത്തരിക അവിടെനിന്നു പോവുക പൈസ വാങ്ങിയിത് മാത്രമേ ഉള്ളു ഞങ്ങളുടെ ജോലി പൈസ കയറുന്നതൊക്കെ എന്നുവച്ചാല് അത് നമ്മള്ക്കറിയില്ല അത് ഗവൺമെന്റിൻ്റെ കാര്യങ്ങളാണ് അത് ഞങ്ങൾക്കിതുകൊണ്ട് ഡെലിവറി ചെയ്യുക അത് കഴിഞ്ഞു പോവുക ഗ്യാസിനു വില കൂടുന്നത് നമ്മള്ക്കുമറിയാം എൻ്റെ വീട്ടിലേക്ക് ഗ്യാസൊക്കെ ആവശ്യമുള്ളതാണ് അപ്പോള്ത്തന്നെ എനിക്കീ ഞാൻ സംസാരിക്കുകയാണെങ്കില്ത്തന്നെ അവര് എന്നെ എന്നോടെ ഷൗട്ടിയ്യുള്ളൂ കാരണം എന്നെ ചീത്ത പറയുകയുള്ളൂ കാരണം നിനക്കിതുകൊണ്ട് കൊടുത്താല്പ്പോരെ അതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല അതൊക്കെ കസ്റ്റമേഴ്സ് പറയുന്നതാണെങ്കിലും അതൊന്നും നോക്കേണ്ട എന്നൊക്കെയേ പറയുകയുള്ളു പോരാത്തതിന് അത് ഗവൺമെന്റാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങള് നോക്കുന്നത് അതിനേക്കുറിച്ച് നമ്മള്ക്കറിയില്ല അത് എനിക്കറിയാം സാർ കാരണം ഞാനും ഇതേപോലെ വീട്ടില് ഇഷ്ടംപോലെ ഗ്യാസ് യൂസിയ്യുന്നുണ്ട് അപ്പോള് എനിക്കും അതിനെക്കുറിച്ചറിയാം ഞാനേ ഇപ്പോള് എനിക്കിതിനേക്കുറിച്ച് അവരുടെയടുത്തു പറഞ്ഞാലും വലിയ മാറ്റമൊന്നും ഉണ്ടാവാന് പോകുന്നില്ല പോരാത്തതിന് അത് ഗവൺമെന്റെന്തൊക്കെയോ ഗവൺമെന്റിനെന്തൊക്കെയോ കാര്യങ്ങളാണത് സാർ അതിപ്പോള് എനിക്ക് എൻ്റെ ജോബെന്നുവച്ചുകഴിഞ്ഞാല് അവിടെ കൊണ്ടപോയി ഇറക്കുക അതേപോലെത്തന്നെ നേരെ ഓഫീസില് പോവുക പൈസ വാങ്ങി ഇതുമാത്രമേ ഉള്ളു എൻ്റെ ജോലിയെന്നുവച്ചാല് നിങ്ങൾക്ക് ഇത് കംപ്ലെയ്ൻറ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങള് നേരെ ഇതില് വിളിക്കണം ഇതിൻ്റെ വിളിച്ചിട്ടു നിങ്ങള് സംസാരിക്കണം ഓക്കെ ഓക്കെ സാർ ഓക്കെ താങ്ക്യൂ സാർ താങ്ക്യൂ മ്മ്